വിത്തുകളൊക്കെ കൊടുക്കുന്ന ഹലോ ഞാൻ ജെയ്മോൾ സജി ആണേ എനിക്ക് കുറച്ച് പച്ചക്കറികളുടെ വിത്തുകൾ വേണമായിരുന്നു അത് ഹൈബ്രിഡ് ആണോ സാധാരണ ഉള്ളതാണോ ഇരിക്കുന്നത് ഇവിടെ ഉണ്ടല്ലേ ആ കൂടുതൽ ഇപ്പം പോകുന്നത് ഏതാണ് ആ ആ ഓക്കെ ഓക്കെ ആ ആ പുകയില കഷായം ഇട്ടല്ലേ ആ ഓക്കെ ഏ ആ നമുക്ക് ക്യാരറ്റിൻറെയും ബീറ്റ്റൂട്ടിൻ്റെ പൈസ

ഉണ്ടോ അവിടെ എനിക്ക് പച്ചക്കറി കൃഷിയോട് താല്പര്യം ഉണ്ട് അപ്പോൾ കുറച്ച് നമ്മുടെ വീടിൻ്റെ ടെറസിലും മുറ്റത്തും ഒക്കെ കുറച്ച് ചെയ്യാം എന്ന് ഓർത്തായിരുന്നേ ആ

ആ ഉവ്വ് ആ അതെ അതെ ആ എല്ലാ ഐറ്റവും ഉണ്ടല്ലേ വെണ്ട പച്ചമുളകിൻ്റെ തക്കാളി ചീര ആ ഓക്കെ ഓക്കെ ആ ആ എന്നാൽ ഞാൻ ഇറങ്ങിക്കോളാം കേട്ടോ താങ്ക് യു ഹലോ പിന്നെ ഒരു സംശയം കൂടി ഉണ്ടായിരുന്നേ നമുക്ക് ഈ മുരിങ്ങയുടെ തൈ അരി പാകിയുള്ള അതുണ്ടോ അവിടെ ആണല്ലേ

ഓ ഹോ ഹോ അതിന് നാട് ആ ഹാ ഹാ കായ എങ്ങനെയാണ് ബലം നല്ലതായിട്ട് ഉണ്ടാവുമോ ഓ ഹോ ഹോ ഓ

ഓക്കെ ഓക്കെ

ആ ആ

പിന്നെ നമുക്ക് ഈ ബീറ്റ്റൂട്ട് കാബേജ് കോളിഫ്ലവർ അങ്ങനെ ഉള്ളതിൻ്റെ അരികളുണ്ടോ ഉണ്ടല്ലേ അതിന് എന്ത് റേറ്റ് ഒക്കെ വരും ഓക്കെ ഓക്കെ ആ പിന്നെ മറ്റേ ഈ അരികൾ പായ്ക്കറ്റിലാണോ അതോ ലൂസ് ആയിട്ടാണോ കൊടുക്കുന്നത് പായ്ക്കറ്റിൽ അല്ലേ അത് എത്ര വെച്ച് ഇരുപത് അല്ലേ ഓക്കെ ഓക്കെ ആ ആ ഓക്കെ ഓക്കെ ആ ആ ആ ആ എനിക്ക് കുറച്ച് പാവലിൻ്റെ കൃഷിയുണ്ട് പാവൽ ഞാൻ ഇങ്ങനെ മരുന്നൊന്നും അടിക്കാതെ പേപ്പർ ഒക്കെ കെട്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കൊത്ത് ആ ഈച്ച കൊത്താതെ അതെ അതെ ഇടുക്കിയിലായിരുന്നു ഞങ്ങളുടെ വീട് നേരത്തെ അതുകൊണ്ട് നമുക്ക് കുറച്ച് അങ്ങനെയുള്ളെ കാര്യങ്ങളോട് താല്പര്യം ഉണ്ടായിരുന്നു ഇപ്പം ഇവിടെ ഇപ്പം പത്തനംതിട്ടയും ഓക്കെ ഓക്കെ ആ ഓക്കെ താങ്ക് യു